പാലക്കാട് ജില്ലയില് ഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്നത് സ്വകാര്യ ബസ് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഒക്കെ സ്വകാര്യ ബസ് ആണ് നമ്മള് കൂടുതൽ ഉപയോഗിക്കുന്നത് അതിലിപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഈ ബസ് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോ ഓരോ ബസ്സിൻ്റെയും പോകുന്ന സമയം നമ്മൾ ഓർത്തു വെച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ആ ബസ് പാസ് ചെയ്യുമ്പോൾ ഇത്ര സമയമായി പന്ത്രണ്ട് മണിയായി അല്ലെങ്കിൽ ഒരു മണിയായി എന്ന് നമ്മള് ഓർത്തിരിക്കും നമ്മൾ ബസ്സിൽ പോകുന്നില്ലെങ്കിലും നമ്മക്ക് ആ സമയം ബസ് പോണ സമയം നമുക്ക് വീടിന് ബസ് പോകുന്ന വഴിയിൽ ഉള്ളവർക്കും അടുത്തുള്ള വീടുകളില് ഉള്ളവർക്ക് ഒക്കെ അറിയാൻ പറ്റും അതൊക്കെ ഇവര് ആ ഒരു ഒരു ദിവസം ബസ് ഓടിയില്ല ഒരു ദിവസം ബസ് ഓടിയില്ല പറഞ്ഞാൽ നമുക്ക് ഈ സമയമൊന്നും പെട്ടെന്ന് അറിയാൻ പറ്റില്ല ബസ് ഇല്ലാത്തതുകൊണ്ട് സമയം നമ്മള് ശ്രദ്ധിക്കില്ല നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അടുക്കള പണിയെടുക്കുന്നവരൊക്കെ ആണെങ്കിലും സമയം നോക്കിക്കൊണ്ടിരിക്കില്ല ഇപ്പോ ബസ് പോകുമ്പോ പന്ത്രണ്ട് മണിയായി ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് ഒരു ദിവസം ബസ് ഇല്ലാതാകുമ്പോ അവര് സമയമൊന്നും ചിലപ്പോൾ അറിയാതിരിക്കും ഇതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലിപ്പോ ബസ് വളരെ ചുരുക്കം സമയങ്ങളിലക്കെ ബസ്സ് ഉള്ളൂ അതിപ്പോ നമ്മൾക്ക് ഒരു സ്ഥലത്തോട്ട് അത്യാവശ്യമായി പോകണമെങ്കി ബസിൻ്റെ ലഭ്യതക്കുറവ് ഭയങ്കരം ആയിട്ടുണ്ട് കൃത്യ സമയത്ത് ഒന്നും നമുക്ക് ബസ്സില്ല ഇടവിട്ട സമയങ്ങളിലെ ബസ് ഉള്ളൂ അപ്പം നമ്മള് സമയം ഒരുപാട് വേസ്റ്റ് ആകും നമുക്ക് പതിനൊന്നു മണിക്ക് ഒരു സ്ഥലത്ത് എത്തണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എട്ടുമണിക്ക് ബസ്സ് ഉള്ളൂ ഈ എട്ടുമണിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് പോയി അവിടെ പോയി പത്ത് ഒമ്പത് മണിക്ക് തൊട്ട് പതിനൊന്ന് മണി വരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും നമുക്ക് ഒരു ഒമ്പ പത്തേ മുക്കാലിന് ഒരു ബസ് ഉണ്ട് പറഞ്ഞാ ഈ പത്തേ മുക്കാലിന് പോയാ പതിനൊന്ന് മണിക്ക് കൃത്യ സമയത്ത് അവിടെ എത്താമായിരുന്നു നമുക്കിപ്പോൾ ഈ സമയത്ത് ബസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് സമയം നമ്മടെ നഷ്ടമാവുകാണ് പിന്നെ നമ്മള് ദൂര സ്ഥലങ്ങളിൽ ഒക്കെ പോകുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ട്രാൻസ്പോർട്ട് ബസാണ് ഉപയോഗിക്കുന്നത് കെ എസ്ആ ർ ടി സി പോലെയുള്ള ബസ്സാണ് നമ്മൾ കൂടുതലും തമിഴ്നാട് കർണാടക അങ്ങനെ ലോങ്ങ് ഒക്കെ പോകാൻ എടുക്കുന്നത് നമ്മളെ സ്വകാര്യ ബസ് ഒന്നും ദൂരെ യാത്രയ്ക്ക് നമ്മള് കണ്ടിട്ടില്ല നമ്മുടെ ബസൊക്കെ സ്വകാര്യ ബസ് ഒക്കെ അടുത്ത് ഉള്ള ഓട്ടങ്ങളിൽ ഒക്കെയുള്ളൂ ഇപ്പം നമ്മളെ ഈ വീടിൻ്റെ അവിടുന്ന് പാലക്കാട്ടിലോട്ട് അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോട്ട് അങ്ങനെ ഉള്ളതേ ഉള്ളൂ നമ്മളിപ്പോ ലോങ്ങ് ഓട്ടങ്ങൾ ഒന്നും സ്വകാര്യ ബസ് ഓടുന്നില്ല അപ്പോ അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കെഎസ്ആർടിസി ആണ് പിന്നെ നമ്മുടെ ഇപ്പോൾ കെഎസ്ആർടിസിക്ക് പാലക്കാട് പുതിയ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് ഉണ്ട് കെഎസ്ആർടിസി ബസ്റ്റാൻഡ് ഉണ്ട് നമ്മളിപ്പോ പുതിയ കെഎസ്ആർടിസി ബസ്റ്റാൻഡ് നവീകരിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ ഒരുപാട് ബസ്സുകളും ഇപ്പം നമുക്ക് നാട്ടില് ഉണ്ട് പാലക്കാട് ജില്ലയിൽ ഉണ്ട് ഒരുപാട് കെഎസ്ആർടിസി ബസുകളും ഒരുപാട് ദൂര യാത്ര സർവീസുകളും ഒക്കെ നടക്കുന്നുണ്ട് ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടും